ഇത് നിളാ ബേക്കറി ആണോ ഹലോ ബേക്കറി ആണോ എനിക്കൊരു കേക്ക് വേണമായിരുന്നു ഏതൊക്കെ സൈസ് കേക്ക് ആണ് ഉള്ളത് അവിടെ ഒരു കിലോയുടേത് മതി ആണല്ലേ എങ്ങനെ എത്രയാണ് വിലയൊക്കെ ആണല്ലേ വാനിലയുടെ എന്നാ ആ ഇല്ലേ എനിക്കൊരു കേക്ക് വേണമായിരുന്നു അത് എവിടെയാണ് ഇതിൻ്റെ കട എവിടെയാണ് ഞാൻ എടത്തുവായിൽ നിന്ന് ആണല്ലേ ആ ആ ആ ശരി ശരി ആ ആ എനിക്കൊരെണ്ണം വേണമായിരുന്നു അതിനാണ് വിളിച്ചതേ ആ രണ്ട് ദിവസം കഴിഞ്ഞ് ആ ആ ആ ആ ഓ പേര് വേണ്ട വേണ്ട അഞ്ച് മണിക്ക് തരാമോ

ആ വന്ന് വാങ്ങിച്ചോളാം ആ ഓ പീസ് കേക്ക് ഒന്നും വേണ്ട ആ ഒരെണ്ണം മതി ബർത്ത്ഡേക്കല്ലേ അപ്പോൾ അത് ആ മതി മതി പിന്നെ

ആ അവിടെ വന്ന് മേടിച്ചോളാം ആ ശരി ശരി

ആ ശരി ശരി ആ ഓക്കെ ഓക്കെ ആ ആ ഓ ആ ശരി